ഹലോ ഇത് പ്രിയ എന്ന് പറഞ്ഞയാളാണോ ഞാനെ ഞാനെ തോപ്രാംകുടിയിലെ നൂർനാഗ് കടയിലെ സെയ്ൽസ് ആയിട്ട് നിൽക്കുന്നയാളാണേ ആ അവിടെ കുറച്ച് ആ കുറേ പുതിയ ഐറ്റം സാരിയൊക്കെ വന്നിട്ടുണ്ട് ചുരിദാറ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയൊന്ന് പരിചയപ്പെടുത്താൻവേണ്ടി വിളിക്കുവായിരുന്നേ ആ സാരി നല്ല കൂടിയ സാരിയുണ്ട് ടെസർ സിൽക്കുണ്ട് നാലായിരം അയ്യായിരം ഒമ്പതിനായിരം ഒക്കെ വിലയുള്ളത് നല്ലതാണ് അത് ഉടുത്താൽ നമുക്ക് നല്ല ഒരു ദേഹം ഒരു ഉവ്വാ ദേഹത്ത് ഇങ്ങനെ ഒരൂ പറ്റിക്കിടയ്ക്കുന്ന പോലൊരു നല്ല കൂളിംഗ് ആണ് ചൂടൊന്നും ഇല്ല ആ ടെസർ സിൽക്ക് ആ അതിന് പറ്റിയ സാരി ഉണ്ട് ഇത് ഉണ്ട് മാഡം നല്ല കളറ്കളുണ്ട് ബ്ലൂവുണ്ട് ഗ്രീനുണ്ട് റെഡ്ഡുണ്ട് പീച്ച് അങ്ങനെ കുറേ കളറുണ്ട് ചില്ലി റെഡ് ആ ഇഷ്ടംപോലെ വെറൈറ്റി കളറുണ്ട് മാഡത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി കളറ് ഒത്തിരി വന്നിട്ടുണ്ട് ആ ചുരിദാറ് ചുരിദാറ് വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയല് വന്നിട്ടുണ്ട് ആ കൂടിയ ഐറ്റമുണ്ട് അത് പോലെ കമ്പനി ഐറ്റം സാരികള് ഇഷ്ടപ്പെടുന്ന കളറാണ് പിന്നെ ടെസറിൻ്റെ ബാമ്പൂ സിൽക്ക് ഉണ്ട് ബാമ്പൂ സിൽക്ക് അതിന് തൊള്ളായി ഒമ്പതിനായിരത്തിന് മേളിലാണെ

ആ ഫോട്ടോ ഇട്ട് തരാം ഏ ആ ആ ആ ഉള്ള ഉള്ള കളറ് എല്ലാം ഞാൻ ആ നേരം ഉണ്ടെങ്കിൽ ഇവിടംവരെയൊന്ന് ഇറങ്ങുവാണെൽ എല്ലാം സെലെക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും നല്ല ഐറ്റംസ് ഒക്കെ മ്മ് ഈ നമ്പർൽ ഇത് നമ്പർലേക്ക് അയച്ചാൽപ്പോരെ ആ ആ എല്ലാം അയച്ചുതരാവേ ഡെയ്ലി യൂസിന് പറ്റിയ ഐറ്റംസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് മാഡം ആയിരത്തി ഇരുനൂറ് മുതൽ മേളിലേക്കുള്ളതെല്ലാം ഉണ്ട് മ്മ് നല്ല കൊട്ടണ് ഉണ്ട് ആ പിന്നെ ആ വേനൽക്കാലത്ത് ആ കോട്ടണുണ്ടെന്നെ കോട്ടൺ മെറ്റീരിയലാണ് കൂടുതലും പൊക്കോണ്ടിരിക്കുന്നത് ഡെയ്ലി യൂസ്കാരെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് പല വെറൈറ്റി കളറ് ഉണ്ട് എന്തോ ആ റിഡക്ഷനുണ്ട് മാഡം എല്ലാത്തിനും റിഡക്ഷനൊണ്ടേ അഞ്ച് ശതമാനം തൊട്ട് പത്ത് ശതമാനം വരെ റിഡക്ഷനുണ്ട്

ആ അയക്കാം ആ കിഡ്സിനുള്ളത് ആ കിഡ്സിനുള്ള റെഡിമേഡ് ഐറ്റംസ് ഇഷ്ടംപോലെയുണ്ട് ഗേൾസിനും ബോയ്സിനും ഉള്ളത് നല്ല വെറൈറ്റിയായിട്ട് പുതിയ മോഡല് വന്നു പുതിയ മോഡല് ഇറങ്ങിയിട്ടുണ്ട് ആ ആ ഇവിടെ ആ ഇവിടെ ഇവിടെ ഇവിടെ വന്ന് ഡ്രെസ്സ് എടുക്കാറുള്ളതാണോ ഉണ്ട് ആ ഒത്തിരി മെറ്റീരിയൽ മാഡം വന്നപ്പത്തെ പോലെയല്ല ഇപ്പോൾ ഒത്തിരി പുതിയ ഐറ്റംസ് വന്നിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ നല്ല ഒത്തിരിയാൾക്കാർ വരുന്നുണ്ട് അതെല്ലാം പിന്നെ സെലക്ഷൻ പോകുന്നതിന് മുമ്പ് വന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിന്ന് എല്ലാത്തിൻ്റെയും ഇട്ടേക്കാം

ആ ആയിക്കോട്ടെ മാഡം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ